ആ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ടാപ്പ് വെള്ളം ലഭിക്കാറുണ്ട് വെള്ളം ലഭിച്ചാൽ ഞങ്ങളുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും എന്നതിലുപരിയായിട്ട് ടാപ്പ് വെള്ളം ലഭിയ്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യാവസ്ഥ ലഭിക്കുന്ന വെള്ളം വളരെയധികം ശുദ്ധമാണ് കാരണം കാരണം കിണറ്റിൽ നിന്നാണ് ഞങ്ങള് വെള്ളം എടുക്കുന്നത് ഒരു കുഴൽ കിണറോ അങ്ങനെ ഒരു ഒരു സംവിധ ഒരു സംവിധാനങ്ങളും ഞങ്ങള് ഉപയോഗിക്കാറില്ല ശുദ്ധമായ കിണറ്റിൽ നിന്ന് തന്നെയാണ് അവ അതിൽ നിന്ന് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് ശുദ്ധീകരിച്ചെടുക്കുന്ന വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശുദ്ധമായ വെള്ളം തന്നെയാണ് ഞങ്ങള് ഉപയോഗിക്കാറ് ടാപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന വെള്ളം തീർച്ചയായിട്ടും ശുദ്ധമാണ്